ഞാൻ എൻ്റെ പഞ്ചായത്തിലെ ഒരു ഓഫീസറിനെ വിളിച്ച് ഇപ്പം എങ്ങനെയാണ് മാലിന്യങ്ങളെപ്പറ്റി ഒന്ന് അന്വേഷിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്

ഇപ്പം നിലവിൽ മാലിന്യങ്ങൾ കൂടുതലും നമ്മൾ ഓരോ ആൾക്കാർ നിക്ഷേപിക്കേണ്ടാത്ത സ്ഥലത്താണ് നിക്ഷേപിക്കുന്നത് അത് വളരെ ഒരു മോശമായൊരു അന്തരീക്ഷമുളവാക്കും അവിടെ കാരണം വെച്ചാൽ നമുക്ക് മാലിന്യങ്ങൾ ഇടേണ്ട സ്ഥലത്ത് തന്നെയാണ് ഇതിടേണ്ടത് കാരണം അല്ലെങ്കിൽ നമുക്കിത് വളരെ ഉപദ്രവകരമാണ് കാരണം വെച്ചാൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉപയോഗിക്കാനും അത് കളയാനും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റിയൊരു ധാരണ നമുക്ക് ഉണ്ടാകണം അവർ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പഞ്ചായത്തിൽ വിളിച്ചന്വേഷിച്ച് വേണ്ടപ്പെട്ട അതിൻ്റെ ആൾക്കാരെ വിളിച്ച് വേസ്റ്റ് ഡിസ്പോസലിനെപ്പറ്റി നമ്മൾ കൂടുതൽ അവരുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് ഇടപഴകുകയും വേണം